ഈ സമൂഹ ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങൾ വളരെയധികം വേരൂന്നിയിട്ടുണ്ട് ഇന്ത്യയില് മതത്തിന്റെ പേരില് അടിപിടി കള് വരെ കൊലപാതകങ്ങള് വരെ നടക്കുന്നൊരു കാലഘട്ടമാണിത് ചിലര് അന്ധമായി മതത്തെ വിശ്വസിക്കുന്നു എന്നാല് അധികം പേരും മതത്തിൽ വിശ്വസിക്കുന്നില്ല ഇപ്പൊൾ മതം മതത്തിന്റെ പേരില് അടിപിടികൾ ഉണ്ടാവരുത് മതമല്ല ഒരു മനുഷ്യനെ നയിക്കുന്നത് അവരുടെ മതത്തെ അന്ധമായി വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഒരു മത ദൈവം ഒന്നാണ് ആകെ ഒന്നേ ഉള്ളൂ അത് എല്ലാവരും മനസിലാക്കി പ്രവർത്തിക്കുകയാണെങ്കില് മതതീവ്രവാദം ഒഴിവാക്കി എല്ലാവരും ഒത്തൊരുമയോടെ പോവുകയാണെങ്കില് എല്ലാവർക്കും നല്ലത്